ഇന്ഡ്യയില് ധാരാളം മതകേന്ദ്രങ്ങള് ഉണ്ട് ധാരാളമാളുകളീ മതകേന്ദ്രങ്ങള് സന്ദര്ശിക്കുന്നതും ഉണ്ട് അതില് പ്രധാനപ്പെട്ടതെന്ന് പറയാന് പറ്റുന്നത് അയോധ്യയിലെ അയോധ്യയിലെ രാമക്ഷേത്രമാണ് രാമായണത്തിലെ രാമന് രാമയണത്തിലെ പ്രധാനകഥാപാത്രമായ രാമന് ജീവിച്ച് മരിച്ചു എന്നതറിയ എന്ന് കരുതപ്പെടുന്ന അയോധ്യയിലാണ് ബൃഹത്തായൊരു ക്ഷേത്രം നിര്മ്മിച്ചിരിക്കുന്നത് അതുപോലത്തന്നെ കാശി രാമേശ്വരം മുതലായ ക്ഷേത്രങ്ങളും ധാരാളം ആള്ക്കാർ ആള്ക്കാര് സന്ദര്ശിക്കുന്ന കേന്ദ്രങ്ങളാണ് ജുമാമസ്ജിദദും അതുപോലെത്തന്നെ സിക്കുകാരുടെ ഗുരുപ്രോബുകളും ധാരാളം അത് ആള്ക്കാരെ ആകര്ഷിക്കുന്ന കേന്ദ്രങ്ങളാണ് കേരളത്തെ സംബന്ധിച്ചാണെങ്കില് ശ്രീ പത്മനാഭസ്വാമീക്ഷേത്രവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത തീര്ത്ഥാടന കേന്ദ്രമാണ് ഇവിടെ ആള്ക്കാർ ധാരാളം പൂജകളും ക്ഷേത്ര പാരമ്പര്യങ്ങളും ആഘോഷിക്കുന്നവരാണ് ദീപാ ദീപാവലി വടക്കേ ഇന്ഡ്യയിലേറ്റവും കൂടുതലാള് ആളുകൾ ആഘോഷിക്കുന്ന ദസറായെന്ന് പറയുന്ന ആഘോഷവും വടക്കേ ഇന്ഡ്യയില് ധാരാളമായിട്ടും മധ്യപ്രദേശ് ഭാഗങ്ങളില് വടക്കേ ഇന്ഡ്യയില് ധാരാളമായിട്ടാ ഘോഷിക്കുന്നുണ്ട് അതുപോലെത്തന്നെ ഓരോ ക്ഷേത്രങ്ങളിലും ഹിന്ദു മുസ്ലീം ഇസ്ലാം സിക്ക് പാഴ്സി അവരുടെയെല്ലാം ആരാധനാലയകേന്ദ്രങ്ങള് അവരുമായി ബന്ധപ്പെട്ട മത ആചാരങ്ങള്ക്കാണ് ഏറ്റവും കൂടുതല് പ്രാധാന്യം നല്കുന്നതും പരുമല കേരളത്തെ സംബന്ധിച്ച് പരുമല തീര്ത്ഥാടന കേന്ദ്രം ജുമാമസ്ജിദ് മുതലായ സ്ഥലങ്ങളിലെല്ലാം മുസ്ലീം ആചാരപ്രകാരമുള്ള ചടങ്ങുകളും ആഘോഷങ്ങളും നടക്കുന്നുണ്ട്